ഹലോ ഓലെൻ്റെ ഡ്രൈവറല്ലേ ഞാന് ദിൽഷാദ് ഒരൂ എറണാകുളത്തേക്കൊരു ട്രിപ്പ് ബുക്ക് ചെയ്തിരുന്നല്ലൊ അതേതെതെ എർണാകുളത്തേയ്ക്കൊര് ഒല ഒരൂ ടാക്സീ ബുക്ക് ചെയ്തിരുന്നു അപ്പം അത് ക്യാൻസലായി ക്യാൻസലാക്കാനായിരുന്നു ഞാ ആ അന്ന് വേറൊരു പരിപാടി ഉണ്ട് അപ്പം അന്ന് പോകാൻ കഴിയില്ല ക്യാൻസലാക്കാൻ വേണ്ടിയിട്ട് വിളിച്ചതാണ് ഞം അത് വേറൊരു ദിവസത്തേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പം എൻ്റെ അഡ്വാൻസ് ഞാനൊരു രണ്ടായിരം രൂപ അഡ്വാൻസടിച്ചിരുന്നു അതില് അപ്പം അതൊന്ന് റീഫണ്ട് കിട്ടുമോ എന്ന് ചോദിക്കാനാണ് എങ്ങനെ എങ്കിലും ഒന്ന് റീഫണ്ട് ചെയ്തേര് അത് ആ ട്രിപ്പൊരിക്കലും പോകാൻ കഴിയൂല അത് അന്ന് അത് അത്യാവശ്യമായിട്ടുള്ള പരിപാടി ഉണ്ടായത് കൊണ്ടാണ് ഒരു സുഹൃത്തിൻ്റെ വിവാഹമുണ്ട് അപ്പം അത് കഴിയാതെ പോകാനും പാടി കഴിയില്ല എങ്ങനെ എങ്കിലുമൊക്കെ ഒന്ന് റീഫണ്ട് ചെയ്യില്ലേ ഓക്കെ ശരി ശരി